അപ്പം ഫോണെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ വിവോയാണ് വിവോ ഫോൺ നല്ല ഒരു നല്ലൊരു ഫോണാണ് സോ നല്ല ക്ലാരിറ്റിയൊക്കെയുണ്ട് ഫോണിന് പിന്നെ ക്യാമറയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാരണം നമ്മുടെ അടുത്തുന്ന് പിക്ക് എടുക്കുവാണെങ്കിലും അകലേന്ന് പിക്ക് എടുക്കുന്നയാണെങ്കിലും ഒരേ ക്ലാരിറ്റി തന്നെയായിരിക്കും ഫോണിന് സോ അപ്പം അകലെ നല്ല ഡിസ്റ്റൻസിൽ നിക്കുവാണെങ്കിലും ഒരുപ്രൊഡക്റ്റ് നമുക്ക് സൂം ചെയ്ത് നല്ല ക്ലാരിറ്റിയോടെ തന്നെ പിക്കെടുക്കാൻ കഴിയും പിന്നെ ആ ഫോണിന് നല്ല സ്റ്റോറേജ് ഒക്കെയുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ചാർജിങ്ങക്കെ നല്ല പോലെ നിൽക്കും കാരണം നമ്മളിപ്പം ഒരു ഒരു ദിവസം ഒരു ഡേ ഒരു വട്ടോക്കെ നമുക്ക് ചാർജ് ആക്കിയെടുത്താൽ മതിയായിരിക്കും അതൊരു ഈവനിംഗ് വരെ നമ്മള് ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും ചാർജ് എന്നാലും അത്യാവശ്യം ചാർജൊക്കെ സേവ് ചെയ്യാൻ പറ്റും